ഇവിടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയം കൊച്ചി ജവാഹർലാൽ നെഹ്റു ഇൻറ്റർനാഷണൽ സ്റ്റേഡിയമാണ് ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ ഇവിടെ നടത്തീട്ടുണ്ട് ഇന്ത്യ പ്രഭുഖരായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്താ ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവരുമായുള്ള മത്സരങ്ങൾ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നടത്തീട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫിഫ അണ്ടർ സെവൻറ്റിൻ വേൾഡ് കപ്പ്ന് കൊച്ചി ഇൻറ്റർനാഷണൽ ജവാഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിഥേയത്വം വഹിച്ചു ഐ എസ് എൽ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേർസിൻ്റെ ഹോം ഗ്രൗണ്ടായ ജവാഹർലാൽ നെഹ്റു ഇൻറ്റർനാഷണൽ സ്റ്റേഡിയം അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് ഫിഫ വേൾഡ് കപ്പ്ന് മുൻപ് വരെ എൺപതിനായിരം കണികൾക്കുള്ള സൗകര്യം ഉണ്ടായിരുന്ന ജവാഹർലാൽ നെഹ്റു ഇൻറ്റർനാഷണൽ സ്റ്റേഡിയം സുരക്ഷാ കാരണങ്ങളാൽ പിന്നീട് നാൽപ്പത്തൊരായിരമായി കുറച്ചു ഐ എസ് ൽലിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ലബ്ബുകളും ഈ സ്റ്റേഡിയത്തിൽ മത്സരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണുറ്റി ഏഴിൽ ഇന്ത്യ ഇറാക്ക് ഫുട്ബോൾ മത്സരത്തിൽ ഈ സ്റ്റേഡിയത്തിൽ ഒരു ലക്ഷം കാണികൾ വന്നത് ലോക റെക്കാർഡായി കണക്കാക്കപ്പെടുന്നു